ആരോഗ്യസംരക്ഷണത്തിനായി നല്ല രീതിയിലുള്ള പോഷകാഹാരം എല്ലാം ച് ഗ്രാമങ്ങളിലും എത്തണം എന്ന് എത്തും എന്നുള്ള ഉറപ്പ് വരുത്തണം ഗവൺമെൻറ്റ് ഗതാഗതത്തിനായിട്ട് അനാവശ്യായിട്ട് റോഡ് നശിപ്പിച്ചിട്ടുള്ള ടാറിങ്ങും മറ്റ് പൈപ്പ്ലൈൻ ഇടുന്ന പദ്ധതികളൊക്കെ ഒന്നിച്ചാക്കുക അതായത് ഒരൊറ്റ കുഴി കുഴിച്ചുകഴിഞ്ഞാൽ അതുകൊണ്ടുതന്നെ എല്ലാ രീതിയിലുള്ള ക പൈപ്പുകളും ഇടുന്ന രീതിയിലാക്കുക ഓരോ ആവശ്യത്തിനുവേണ്ടിയിട്ട് ഒന്നും രണ്ടും മൂന്നും തവണ ഈ കുഴിച്ചിട്ട് റോഡ് നശിപ്പിക്കുന്ന ഒരു രീതി ഒഴിവാക്കാൻ ശ്രമിക്കുക വിദ്യാഭ്യാസം വളരെ എളുപ്പത്തിൽ ഇപ്പം പത്താം ക്ലാസ് പാസ്സാവുക ഒക്കെ വളരെ എളുപ്പമായി മാറുന്നുണ്ട് അങ്ങനെ ആവാതെ അർഹതപ്പെട്ട ആൾക്കാര് മാത്രം പാസ്സാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടതാണ് പട്ടണം ഗ്രാമ് അടിസ്ഥാന ആവശ്യങ്ങൾ എപ്പളും ഒരു വീടും റോഡ് തുടങ്ങിയ സാഹചര്യങ്ങളാണ് കറൻറ്റ് അങ്ങൻത്തെക്കെയാണ് അതൊക്കെ സർക്കാറിൻ്റെ ഭാഗത്തുനിന്നും വളരെ മെല്ലെയാണ് അത് നടന്നു പോവുന്നുണ്ടായിരുന്നത് അത് നല്ല രീതിയില് സ്പീഡിലായിക്കഴിഞ്ഞാല് കുറെയുംകൂടെ അതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും